ഹലോ റസ്റ്റോറൻറ്റല്ലേ ഞാൻ സ്ട്രീറ്റ് ഫോർട്ടീൻ ഫ്ലാറ്റ് നമ്പർ ഫോർട്ടി ഫൈവിൽ നിന്നു വിളിക്കുകയാണേ എനിക്ക് ഒരു ബിരിയാണി വേണമായിരുന്നു ബിരിയാണി ഉണ്ടാകുമോ കഴിയുന്നതും ബീഫ് ബിരിയാണിയായിരിക്കും നല്ലത് അപ്പം ഒരു പത്ത് ഇരുപത് മിനിറ്റിനകം എത്തിക്കാനായിട്ടു സാധിക്കുമെങ്കിൽ വളരെ ഉപകാരം എനിക്ക് ബിരിയാണി കിട്ടിയാൽ വളരെ ഉപകാരമായിരിക്കും പിന്നേ നിങ്ങളുടെ ഡെലിവറി ബോറി ബോയുടെ അടുത്ത് എനിക്കീ ഒന്നുകിൽ ഡെലിവറി ബോയുടെ അടുത്ത് അഞ്ഞൂറ് രൂപയ്ക്ക് ആയിട്ടുള്ള ചില്ലറ കൊടുത്തു വിടണം അല്ലെങ്കിൽ ഗൂഗിൾ പേ അണ്ടറിൽ നമ്പർ തരണം ഞാൻ പേ ചെയ്തോളാം അപ്പം കഴിയുന്നതും പത്തു മിനിറ്റിനകം എനിക്ക് ബീഫ് ബിരിയാണി കിട്ടണം കേട്ടോ സാധിക്കുമെങ്കിൽ അറിയിക്കണേ എത്രയും പെട്ടെന്ന് അയയ്ക്കുക